ഞാനൊരു പനിയായിട്ടിരിക്കുന്ന ഒര് ആളാണ് അപ്പം എനിക്ക് കുറച്ച് ചൂട് ഞാൻ ചായ കൂടുതൽ ചായ കുടിക്കാനായിട്ട് ഞാൻ എപ്പഴും ആഗ്രഹിക്കുന്ന എൻ്റെ തൊണ്ടയ്ക്ക് ഇച്ചിങ് ഉള്ളത് കൊണ്ട് അപ്പം ഞാൻ അപ്പോൾ ഞാനെൻ്റെ റെസ്റ്റോറൻറ്റിൽ പോയി ഞാനാ വ്യക്തിയോട് എൻ്റെ ഫ്ലാസ്ക്ക് കൊടുത്തിട്ട് ഫ്ലാസ്ക്കായിരിക്കും കൂടുതലും പാനീയങ്ങൾ ചൂടായിട്ടിരിക്കാനായിട്ട് നമ്മള് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനാ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് പനിയായിട്ടിരിക്കുവാണ് അപ്പോളെനിക്ക് കൂ കൂടുതൽ നേരം ചൂടോട് കൂടിയിരിക്കാനായിട്ട് കുറച്ച് ചായ വേണം അപ്പം അത് അത് നല്ലൊരു ഫ്ലാസ്ക്കിലോ അല്ലെങ്കിൽ അത് കൂടുതല് ചൂടായിട്ടിരിക്കാൻ പറ്റിയ ഒരു പാത്രത്തിലെനിക്ക് തരണം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലാസ്ക്ക് അതിനകത്ത് അപര്യാപ്തമാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ പൈസ പേ ചെയ്യാം അപ്പം അതിന് പറ്റിയൊരു ഫ്ലാസ്ക്കോ കണ്ടൻസറോ ഇതാക്കി എനിക്ക് തന്നെന്നാൽ എനിക്കത് ഉപയോഗപ്രദമായേനെ അങ്ങനെ ഞാൻ ഒര് രണ്ട് ഫ്ലാസ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ അവർക്കതിന് അവൈലബിലായിട്ടുള്ള പാക്കേജിംഗ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ എനിക്കത് തരണമെന്ന് ഞാനവരോട് അഭ്യർത്ഥിക്കുന്നു എനിക്ക് അതാകുമ്പോൾ എൻ്റെ ആരോഗ്യപരമായിട്ട് അത് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു